കണ്ണൂരിലെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് കൊട്ടിയൂർ ക്ഷേത്രം അതേപോലെ തന്നെ ഒരുപാട് കൊട്ടിയൂർ മഹോത്സവം ഇവിടുത്തെ വലിയൊരു ഉത്സവം പോലെയാണ് കൊണ്ടാടുന്നത് അതേപോലെ കണ്ണൂരില് വന്ന വികസനങ്ങൾ എന്ന് പറയുമ്പോൾ കണ്ണൂർ വിമാനത്താവളം ആണ് പണ്ട് കണ്ണൂരിന് വിമാനത്താവളം ഉണ്ടായിരുന്നില്ല ഈ അടുത്താണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടോ ഇരുപത്തൊന്നിലെങ്ങാനും ആണ് കണ്ണൂരിൽ വിമാനത്താവളം വരുന്നത് അതാണ് കണ്ണൂരിലെ ഏറ്റവും വലിയ ഒരു വികസന പദ്ധതിയും കണ്ണൂരിൽ ഒരു വിമാനത്താവളം ഉണ്ടാക്കിയതാണ് ഏറ്റവും വലിയ വികസന പദ്ധതി അതേപോലെ ഇവിടെയുള്ള ഓണങ്ങളൊക്കെ പ്രത്യേകിച്ചൊരു സ്റ്റ വ്യത്യസ്തമായ രീതിയിലാണ് കൊണ്ടാടുന്നത് ഓണം അതേപോലെ തന്നെ കണ്ണൂരിലെ വിവിധ തരം കൾച്ചറുകളുണ്ട് അതേപോലെ തന്നെ കുറെ സംസ്കാരങ്ങൾ ഒത്തിണങ്ങിയതാണ് കണ്ണൂർകാരുടെ ഭാഷ എന്ന് പറയുന്നത് വളരെ കേൾക്കാൻ നല്ല ഇമ്പമുള്ള ഭാഷയാണ് കണ്ണൂർക്കാരുടെ ഭാഷ എന്ന് പറയുന്നത്